സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏതായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ കണക്കാണ് ഏത് കണക്ക് കൂട്ടലുകൾ കാര്യങ്ങൾ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് നമുക്ക് എനിക്ക് ചെറുപ്പത്തിലേ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ നമുക്ക് അതായത് ഒന്നാം ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിപ്പിക്കും ഒന്ന് ഒന്ന് ഒന്ന് ഒന്നും ഒന്നും രണ്ട് അങ്ങനെ ഒക്കെ പറഞ്ഞു പഠിപ്പിക്കും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കണക്ക് കൂട്ടി കിട്ടുമ്പം നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടും ഈ മലയാളം അങ്ങനെ മലയാളം ഇംഗ്ലീഷ് ബാക്കിയുള്ള വിഷയങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എഴുതി ചേർക്കണം ഒരുപാട് നമ്മുടേതായ ഭാവനയിൽ എഴുതി ചേർക്കണം പക്ഷെ കണക്കിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ റൂട്ടെ ഉണ്ടാവുള്ളു ആ റൂട്ടിൽ നമ്മൾ കണ്ട് പിടിച്ച് അതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് പാസ്സായി പിന്നെ അത് കൊണ്ട് തന്നെ എനിക്ക് കണക്കാണ് ഭയങ്കര ഇഷ്ടം കണക്ക് പണ്ട് തൊട്ടേ എനിക്ക് കണക്കാണ് ഇഷ്ടം അത് കൊണ്ട് തന്നെ ഞാൻ കോമേഴ്സ് ബി കോം എം കോം എല്ലാം ഞാൻ പിന്നെ കണക്കിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇത് കൂട്ടലും ഗുണിക്കലും ഹരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ നല്ല രസമാണ് പിന്നെ കൂട്ടാനും ഗുണിക്കാനും ഹരിക്കാനും അങ്ങനെ ഉത്തരം കിട്ടുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിൽ വലിയ സന്തോഷം തോന്നും ടീച്ചറെ കാണിക്കുമ്പോൾ ടീച്ചർ അത് കറക്റ്റാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷമാണ്